പാലക്കാടിൽ പ്രാധാനമായുള്ള വ്യവസായം പറഞ്ഞു വെച്ചാൽ നെല്ലാണ് നെൽ പാലക്കാടിൻ്റെ നെല്ലറ എന്ന് പറയും കേരളത്തിൻറെ നെല്ലറ എന്ന് പറയുമ്പോൾ പാലക്കാടാണ് പാലക്കാട് ജില്ലയാണ് അതു കൂടാതെ നെല്ല് അല്ലാതെ കുറേ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് എന്താണ് മെഴുകുതിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്താണ് സ്റ്റീൽ കമ്പികൾ എന്താണ് വീടുകൾക്ക് ഉണ്ടാക്കേണ്ട സ്റ്റീൽ കമ്പികൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് വിൻഡ് മില്ല് കറ എന്താണ് വൈദ്യുതി എന്താണ് വൈദ്യുതി എടുക്കാനുള്ള കാറ്റിൽനിന്ന് നമ്മള് വൈദ്യുതി ഉല്പാദിപ്പിക്കാനുള്ള പ്രോസ് എന്താണ് മില്ല് അവിടെ എന്താണ് പാലക്കാട് ജില്ലയിൽ ഉണ്ട് അതല്ലാതെ ഇവിടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റബ്ബർ കൃഷികൾ ഉണ്ട് റബ്ബർ എന്ന് അത് പാലെടുത്തിട്ട് ടയർ ഉണ്ടാക്കുന്ന ആ വ്യവസായം ഇവിടെ ചെയ്യുന്നുണ്ട്